ഇവിടെ അത്യാവശ്യം നല്ല ഡോക്ടേഴ്സും ശുചിത്വമുള്ള വാർഡ്കൾ അല്ലേൽ ആവശ്യത്തിന് കിടക്കകളൊക്കെ ഒൾ ഓക്സിജൻ സംവിധാനങ്ങൾ ഇതക്കെയുള്ള ഹോസ്പിറ്റലിൽ ചെറിയ ചെറിയ ഹോസ്പിറ്റല്കൾ നമ്മുടെ ലോക്കാലറ്റിയിൽ ഒരുപാടുണ്ട് നമുക്ക് നമ്മുടെ അത്യാവശ്യ ദൈന്യദനാമായിട്ട് വരുന്ന ചെറിയ അസുഖങ്ങളും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെയായിട്ട് നമുക്ക് അവിടെ പോയി മരുന്നുകളൊക്കെ വാങ്ങിക്കാനും അവടുള്ള ലിസ് സേവനങ്ങളൊക്ക ലഭ്യമാക്കാനും നമുക്ക് ഉപയോഗപ്പെടുത്താനും നമുക്ക് സാധിക്കുന്നുണ്ട് അതിൽ കൂടുതൽ വലിയൊരു സർജറി പോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അതിനപ്പുറം എന്തെങ്കിലും വേണെൽ സംവിധാനങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് അതിന് ട്രിവാ അടുത്ത സിറ്റിലോ അടുത്ത് ജില്ലേലൊട്ടൊക്കെ പോയിട്ട് അല്ലെങ്കിൽ പുറത്തോട്ടൊക്കെ പോയി നമുക്ക് ട്രീറ്റ്മെന്റെടുക്കേണ്ട സാഹചര്യം തന്നാണ് ഉള്ളത് പിന്നെ നമ്മടിവിടെ അത്യാവശ്യം നല്ല ഹോസ്പിറ്റലോകൾ ഉണ്ട് ഉണ്ട് അതിനകത്ത് നല്ല നല്ല ശുചിത്വമുള്ള വാർഡ്കളെന്നൊണ്ട് നല്ല ഓക്സിജൻ സം സൗകര്യങ്ങൾ മരുന്നുകൾ അതുപോലെ തന്നെ നമ്മുടെ ഗവണ്മെന്റ് ഹോസ്പിറ്റലൊകൾ തന്നെ മരുന്നുകളൊക്കെ അവിടന്നന്നെ കിട്ടുന്ന കിട്ടുന്ന തരത്തിലുള്ള സംവിധാനങ്ങളൊക്കയാണിപ്പോൾ ഉള്ളത് ഒരുപാട് നല്ല നല്ല ഉപകരണങ്ങളൊക്കെ തന്നെ ഉപയോഗിച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നതിപ്പം നമുക്കൊരു സ്കാനിങ് കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ തന്നെ അതിന് വേണ്ടുന്ന എല്ലാ സംവിധാനങ്ങളുള്ള ഹോസ്പിറ്റല്കൾ നമ്മുടെ ഏരി ഏരിയകളിൽ തന്നുണ്ട് ചെ ചെറിയ അസുഖങ്ങൾ നമ്മളെന്തെങ്കിലും ചെറിയ സംശയങ്ങളായിട്ടുള്ള അസുഖങ്ങളായിട്ടൊക്കെ നമ്മൾ ചെല്ലാണെങ്കിൽ തന്നെ അത് കണ്ടുപിടിച്ച് അതെതാർത്തത്തിൽ അതിനെ ഡയഗനേസ് ചെയ്ത് എല്ലാം അതിൻ്റെ കാര്യങ്ങളെല്ലാം കണ്ട്പിടിക്കാൻ പറ്റിയ സംവിധാങ്ങളെല്ലാമുള്ള ഹോസ്പിറ്റലുകളും ഹോസ്പിറ്റലുകളുണ്ട് പിന്നെ പട്ടണത്തിലേക്ക് നമ്മൾ വലിയ നഗരത്തിലേക്കും പട്ടണത്തിലേക്കുമൊക്കെ നമുക്ക് അതിന് കൂടുതൽ ആവശ്യങ്ങളുള്ള അസുഖങ്ങൾ വരുവാണെങ്കിൽ മാത്രം നമ്മൾ പോകുന്ന സാഹചര്യങ്ങളുള്ളൂ നമുക്കിവിടെ ജോലിക്കാർകൊക്കെ ആയിട്ടുള്ള ഹോസ്പിറ്റലൊക്കെ ഉണ്ട് അവരുടെ ഇൻഷുറൻസ് പരിദീലൊക്കെ വരുന്ന ഹോസ്പിറ്റലൊളൊക്കെ നല്ല ഹോസ്പിറ്റലുകളായിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത് നല്ല സേവനങ്ങളും മെച്ചപ്പെടുത്താൻന്ന് പറഞ്ഞാൽ ഇനിയും ഇനിയും എന്താ ആളുകളുടെ ജീവിതശൈലി രോഗങ്ങളൊക്ക ഒരുപാട് വരുന്ന സാഹചര്യമായത് കൊണ്ട് ഹോസ്പിറ്റലുകളുടെ എണ്ണോം അതിനനുസരിച്ച് കൂടികൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്